പ്രധാനമായും ചെയ്യേണ്ട നമ്മളെ വ്യക്തി ശുചിത്വവും നാട്ടിലുള്ള ശുചിത്വവും ശ്രദ്ധിക്കുക നമ്മുടെ വീടിന് ചുറ്റും വല്ല വെള്ളം കെട്ടി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കി ൽ അതൊക്കെ എടുത്തു മാറ്റുക പിന്നെ വീടും പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ കൊതുക് നെറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ നെറ്റ് വല പോലത്തെ സാധനങ്ങളൊക്കെ നമ്മളെ കട്ടിലിന് ചുറ്റും ഇടുക പിന്നെ എപ്പോഴും നമ്മൾ നല്ല നമ്മുടെ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം കാത്തു സൂക്ഷിക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ള കാ പോയൻ്റ് പിന്നെ ഈ കൊതുക് മുട്ടയിടാനുള്ള സാധ്യതയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ച് എടുത്ത് മാറ്റണം ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ എന്റെ വീട്ടിൽ ഹെൽത്തുകാർ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ ചീത്ത കേട്ട ഒരു സംഭവം എന്തെന്ന് വച്ചാൽ ഞങ്ങൾ വീട്ടിൽ ഒരു മഴക്കാലമായിരുന്നു അത് ഒരു ബക്കറ്റിൽ നിറച്ചു വെള്ളം കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അറിഞ്ഞില്ല അത് വീടിന്റെ പുറക് വശത്തായിരുന്നു അതിൽ കൊറേ കൊതുകുകള് മുട്ടയിട്ട് കുറേ കുഞ്ഞുങ്ങൾ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളെ ഹെൽത്തുകാർ വന്നിട്ട് വളരെയേറെ ശാസിക്കുകയും ഇതിങ്ങനെ ചെയ്യരുതെന്നുള്ള കുറേ ഓഡറുകൾ തരുകയും ചെയ്തു അതും ഡെങ്കിപ്പനിക്ക് ഡെങ്കിപ്പനിക്ക് സാധ്യതയുള്ള കൊതുകുകളെല്ലാം അതിലുണ്ടായിരുന്നു വലിയ വലിയ കൊതുകുകളും ഒക്കെയുണ്ടായിരുന്നു അതിൽ പിന്നെ അതിന് ശേഷം ഞങ്ങൾ അത് വളരെയേറെ ശ്രദ്ധയോടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കൊതുക് ബാറ്റു പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക കൊതുകുകളെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഒഴിവാക്കുക ജനൽ വാതിൽ സംഭവങ്ങളൊക്കെ സന്ധ്യക്ക് ശേഷം നമ്മൾ പലപ്പോഴും നമ്മളെ വീടുകളിൽ തുറന്നിട്ട് ഇരിക്കാറുണ്ട് അതൊക്കെ വളരെയേറെ ഒഴിവാക്കണം പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ചിരട്ടകളിൽ വരെ ഈ വെള്ളം കെട്ടി നിൽക്കും അതിൽ നിന്ന് തന്നെ വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകുന്നു ഡെങ്കിപ്പനി മലേറിയ ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ വിചാരിക്കും ഈ കൊതുകുകളിൽ നിന്നൊക്കെ വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പക്ഷെ കൊതുകുകൾ പോലും കുറേ ആൾക്കാർ മരിച്ചു പോയിട്ട് വരെയുണ്ട് പിന്നെ ഡെങ്കി നമ്മൾ ഈ ഹെൽത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ നമ്മൾ ഈ ആരോഗ്യ വകുപ്പിൽ നിന്ന് വരുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ അതേ പടി അനുസരിക്കണം അതൊരു പ്രധാന കാര്യമാണ് അവർ പറയുന്ന അതേ നിർദേശങ്ങൾ അനുസരിച്ച് കൃത്യമായ നിർദേശങ്ങൾ പാലിച്ചു പോയാൽ തന്നെ നമുക്ക് കുറെയൊക്കെ തടയാൻ സാധിക്കും പിന്നെ നമ്മൾ ഈ ഈ കിണറിനൊക്കെ നെറ്റ് ഇടണം കിണറിൽ വരെ കൊതുകുകൾ മുട്ടയിടും കിണറിനൊക്കെ നെറ്റ് ഇടണം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇതാക്കണം പിന്നെ സെപ്റ്റിക് ടാങ്കുകളിലൊക്കെ കൃത്യമായ അട അടഞ്ഞിരിക്കണം സെപ്പ്റ്റിക് ടാങ്കുകളിലും കൈ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതലായും കൊതുകുകൾ മുട്ടയിടുകയൊക്കെ ചെയ്യുക വെള്ളം കെട്ടി നിൽക്കുന്ന വൃത്തി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതൊക്കെ നമ്മൾ വൃത്തി വൃത്തിയായിട്ട് സൂക്ഷിക്കണം സെപ്റ്റിക് ടാങ്കൊക്കെ കൃത്യമായി അടച്ച് ശ്രദ്ധിക്കണം പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഈ ചെടികൾക്ക് വെള്ളം നനക്കുന്ന പാത്രങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല അതൊക്കെ പോകുന്ന രീതിയിൽ ആക്കണം നമ്മൾ ഇതാക്കാൻ പിന്നെ വീടുകളിലെ ചില മുകളിൽ സൺഷെയിഡുകളിലൊക്കെ ചിലപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം